ആ പറയൂ ആണോ ഓക്കെ ഒന്ന് എന്തായിരുന്നു ഞാൻ രാവിലെ അപ്പവും കടലക്കറിയുമാണ് കഴിച്ചത്

ആണോ ആ ഞാൻ വർക്ക്ഔട്ട് ഒന്നും ചെയ്തിട്ടില്ല ജിമ്മിൽ പോയിട്ടില്ല വൈകുന്നേരമാണ് പോവൽ മിനിമം വൺ ഹവർ വർക്ക്ഔട്ട് ചെയ്യും ഒരു ആവറേജ് ഒരു ഒന്ന് വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് ചെയ്യാറുണ്ട് ഡെയിലി

എന്തെല്ലം ആണ് കഴിക്കേണ്ടത് അപ്പം

ഓ പറ എത്ര എത്ര ഡിന്നറിന് ചോറാണ് സാധാരണ ഗതിയിൽ കഴിക്കൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓ ആയിക്കോട്ടെ